ഹലോ ഹലോ ഇത് പല്ലിൻറ്റെ ഡോക്ടര് അല്ലേ ആ ഡോക്ടര് എന്റെ പേര് അഭിനവ് എന്നാണ് ഡോക്ടറെ എനിക്കൊരു രണ്ടുമൂന്ന് ദിവസമായിട്ട് പിന്നെ അണപ്പല്ലിൻറെ അവിടെനിന്ന് ഭയങ്കരം വേദന ആ എനിക്കിപ്പോള് പത്തൊമ്പത് വയസ്സ് ഡോക്ടറെ റേയ്ഞ്ച് കട്ടായി ഒന്നുകൂടെ പറയുമോ ഏ ഇല്ലില്ല എനിക്ക് കണ്ടിട്ട് കേടുള്ളതുപോലെയാണ് തോന്നുന്നത് ഉള്ളില് ചെറിയ കറുത്ത പാടൊക്കെയുണ്ട് ഒരു ഹോളും കാണുന്നുണ്ട് അപ്പോള് എനിക്ക് അവിടെവെച്ചൊന്നും കഴിക്കാനും പറ്റുന്നില്ല അത് പ്രശ്നമാണ് ചവയ്ക്കാനെ പറ്റില്ല വായ തുറക്കുമ്പോള് വേദനയാണ് ഇല്ല നീരങ്ങനെയില്ല

ഏ അങ്ങനെ അടർന്നുപോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എനിക്കിപ്പോള് രണ്ടുമൂന്ന് ദിവസമായിട്ട് വേദന തുടങ്ങിയിട്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ളില് കേടുള്ളതുപോലെയും ചെറിയൊരു ഹോളുള്ളതുപോലെയും തോന്നുന്നത് അങ്ങനെ കാണുന്നുണ്ട് ഞാന് അങ്ങനത്തെയൊന്നും കഴിച്ചിട്ടില്ല ഞാൻ റിസ്ക്കങ്ങനെ സ്വന്തം ഇഷ്ടത്തിനങ്ങനെയൊന്നും കഴിച്ചുനോക്കിയില്ല ആ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് അതുപോലെ ചെയ്യാം വായ ഉപ്പുവെള്ളം ഉപയോഗിച്ച് വായ കഴുകുക അല്ലേ ആ ഓ പേര് അഭിനവ് എന്നാണ്

അപ്പോള് ഞാൻ ക്ലിനിക്കിലേക്ക് വരേണ്ടിവരുമല്ലേ ആ അപ്പോയ്ൻമെൻറ്റ് എടുക്കുന്നുണ്ട് എനിക്കെന്തായാലുമൊന്ന് കാണിക്കാൻ ഇപ്പോള് ഫുഡ്ഡൊന്നും കഴിക്കാന് പറ്റാത്ത അവസ്ഥയാണ് ഓ എത്താന് പറ്റും എത്താന് പറ്റും ഞാൻ ക്ലിനിക്കിലേക്ക് വരാം ഓക്കെ ഇല്ലില്ലില്ല

ആ ഓക്കെ ഡോക്റ്റർ ആ ഓക്കെ ആ അപ്പോള് ഞാൻ രാവിലെ പത്ത് മണിയാകുമ്പോള് ക്ലിനിക്കിലേക്ക് വരാം വേറെ എനിക്ക് തോന്നുന്നു പല്ല് കമ്പിയിടണമെന്നുണ്ട് ആ പല്ല് ചെറുതായിട്ടൊരു ആ ഓ അങ്ങനെയുണ്ടല്ലേ ആ നമ്മള് നാളെ ഞാൻ ക്ലിനിക്കിലേക്ക് വരാം ഡോക്ടറൊന്ന് ചെക്ക് ചെയ്തിട്ട് ഓ മതി ആ ഞാൻ മുകളിലത്തെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഡോക്ടർ ശരി